ഞാൻ എൻ്റെ ലൈഫില് ഒരു സുപ്രധാന തീരുമാനം എടുത്തത് എൻ്റെ പ്ലസ് ടൂ കഴിഞ്ഞപ്പഴായിരുന്നു അതെന്താണ് വെച്ച് കഴിഞ്ഞാല് പ്ലസ് ടൂ കഴിഞ്ഞപ്പോള് എനിക്ക് ഒരു മൂന്ന് കോളേജില് എന്നു വെച്ചാല് മൂന്നു മൂന്ന് കോഴ്സ് ആയിരുന്നു ഒന്ന് ഡിപ്ലോമ ഒന്നെൻ്റെ ഒരു ഡിഗ്രി ഒന്നെനിക്ക് എഞ്ചി ഡിഗ്രി തന്നെ എഞ്ചിനീയറിങ്ങ് ഈ മൂന്ന് മൂന്ന് കോഴ്സിന് ഒരേ ദിവസങ്ങളിലായിട്ട് ഏത് കോള് ഏതെങ്കിലൊരു കോളേജില് പോയി ചേരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഏ എല്ലാത്തിനും ചേരണ്ടത് അവസാന തീയതി ആയിരുന്നു മൂന്നു കോഴ്സിനും കൂടി ചേരേണ്ട തീയതി അവസാന ഡെയ്റ്റ് ആയിരുന്നു അപ്പം ആ ആവസ് ഒരു ഡെയ്റ്റില് ഞാൻ ഇതില് ഏതെങ്കിലുമൊന്ന് ചൂസ് ചെയ്തില്ലെങ്കില് ഇത് മൂന്നും പോകും അങ്ങനെ ഞാന് ഭയങ്കര ഭയങ്കര ആലോചന ഒക്കെ ആലോചിച്ചിങ്ങനെ നിക്കുമ്പഴാണ് എന്നെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയക്കെ സഹായിച്ചു തീരുമാനം എടുക്കാൻ വേണ്ടീട്ട് പിന്നെ എൻ്റെ മെയിനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഗോകുൽ എന്ന് പറഞ്ഞ ആ ഏട്ടനാണ് എന്നെ കൂടുതലായിട്ട് സഹായിച്ചത് അങ്ങനെ ഞാന് ലാസ്റ്റ് പാലക്കാട് വിക്റ്റോറിയ കോളേജില് പോയിട്ട് ഡിഗ്രിയ്ക്ക് ചേരുവാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലില്